എൻറെ ഉപഭോക്താക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രായമായ അമ്മച്ചിമാരും കോളേജ് സ്റ്റുഡൻസുവൊക്കെ വരാറുണ്ട് അവർക്ക് ചുരിദാറുകളൊക്കെ തയിച്ച് കൊടുക്കാറുണ്ട് പ്രായമായ അമ്മച്ചിമാർക്ക് ബ്ലൗസുകളൊക്കെ തയിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഷർട്ടുകളൊക്കെ തയിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഇതിനെ കുറിച്ച് ഇതൊരു ചെറിയ ബിസിനസ്സ് നടത്തുകയാണൊ എന്ന് ചോദിച്ച് കഴിഞ്ഞാല് ഇത് വീട്ടിലിരുന്നൊരു സ്വയം തൊഴിലായിട്ടാണ് ഞാനിത് മനസ്സിൽ കണ്ടാണ് ഇത് പഠിക്കാനായിട്ട് തന്നെ പോയത് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു പുറത്ത് പോയി കട ഇടുകയോ അല്ലെങ്കില് അങ്ങനെ ചെയ്യാൻ ഒരു അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് സ്വയമായിട്ട് വീട്ടിലിരുന്ന് തന്നെ ഈ ഒരു ബിസിനസ്സ് നടത്തുക എന്നതായിരുന്നു എൻറ്റെ ഉദ്ദേശം പിന്നെ ജു പല ബ്രമ പല ഫാഷൻ ബ്രാന്ഡുകളിലേക്ക് ഒന്നും ഇതുവരെയായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല പിന്നെ ഷർട്ട് ബ്ലൗസ് സൽവാർ ഇങ്ങനെയൊക്കെ ഉള്ള സധനങ്ങൾക്ക് മിതമായ രീതിയിലാണ് ഫീസുകൾ ഈടാക്കാറുള്ളത് അമിതമായ രീതിയിൽ ഒന്നും ചെയ്യാറില്ല